തീർച്ചയായും ദീർഘ ദൂരം യാത്ര ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ബൈക്ക് യാത്ര നമ്മളെ അവശയാക്കുന്നതും മടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുവഴി ചിലപ്പോഴൊക്കെ കൂടുതൽ അപകട സാധ്യതകളും ബൈക്ക് യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ശരിയായ ഉറപ്പും ഉറപ്പാക്കുന്നു ഓരോ ദിവസവും സജീവമായി തുടരാൻ നന്നായി വിശ്രമിക്കുന്നു ഓരോ യാത്ര ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ കുറച്ച് വിശ്രമിക്കുകയും ഒരു ചായ കുടിക്കുകയും ചെയ്യുന്നു അതുവഴി എൻ്റെ ഊർജ്ജം കുറച്ചുകൂടി ഉയർത്തുവാൻ സാധിക്കുന്നു സമയനുശ്രിതമായി യാത്ര തുടങ്ങുന്നു തിരക്ക് ഒഴിവാക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു ഞാൻ എൻ്റെ ആത്മവിശ്വാസം പുലർത്തുന്നു ഓരോ യാത്രയും വിജയകരമായി പൂർത്തിയാക്കുമെന്ന് ആത്മവിശ്വാസം ഞാൻ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ യാത്രയിലും ഞാൻ പോകുന്നത് അതുമാത്രമല്ല റോഡ് നിയമങ്ങൾ കർഷനമായി പാലിച്ച് ജാഗൃതയോട് കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് കൃത്യമായി ഹെൽമെറ്റുകളും വണ്ടിയുടെ ബുക്കും പേപ്പറുകളും എല്ലാം ഞാൻ കരുതാറുണ്ട് അതുവഴി കൂടുതൽ ഏടാകൂടങ്ങളിൽ നിന്നും ചാടാനുള്ള അവസരങ്ങൾ നിന്നും രക്ഷ നേടാൻ എന്നെ കൊണ്ട് സാധിക്കും മനസ്സിനെ ശാന്തമായി വെക്കുന്നു യാത്രയ്ക്ക് മുൻപ് ചില തണുത്ത നിമിഷങ്ങൾക്കായി മനസ്സിനെ തയ്യാറാക്കുന്നുണ്ട് അതുവഴി കൂടുതൽ ചിന്തിച്ച് നമ്മുടെ മനസ് കുളമാക്കി നമ്മൾ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതിലും ഏറ്റവും ഉത്തമം സമാധാനപരമായ യാത്രയാണ് യാത്രക്കിടെ ഉത്സാഹം നൽകുന്നതിനെ വിശ്രമവേളകളിൽ ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട് അതുവഴി എൻ്റെ പ്രചോദനം കൂടും കൂടാനും പോസിറ്റിവിറ്റി കൂടുവാനും എന്നെ സഹായിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന മനോഭവം നിലനിർത്താർ ഞാൻ ശ്രമിക്കാറുണ്ട് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു അതുവഴി എൻ്റെയും എൻ്റെ കൂടെയുള്ള സഹയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പ് വരുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് മറ്റ് യാത്രക്കാരോട് സഹകരിക്കുകയും ഇണങ്ങുകയും ചെയ്യുന്നു ഒരു റോഡിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നാം ഒറ്റക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ഒരു സഹയാത്രകർ എന്തായാലും ഉണ്ടാകും അവരുമായുള്ളൊരു സഹകരണത്തിലൂടെയാണ് ഞാൻ വണ്ടി ഓടിക്കാറ് ഓരോ യാത്രയിലും എൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഉത്സഹത്തോടെയാണ് ഞാൻ തുടരുന്നത് കൃത്യമായി ഇടവേളകൾ എടുത്ത് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാറ് ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ കൂടെ എനിക്ക് മടുക്കുമ്പോൾ വണ്ടി ഓടിക്കാനായി എൻ്റെ കൂട്ടുകാരെയോ ആരെയെങ്കിലും ഞാൻ കരുതാറുണ്ട് ദീർഘ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ അത് തീർച്ചയായും ഉറപ്പു വരുത്താറുണ്ട് അതുവഴി ഞാൻ വിശ്രമിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വണ്ടി ഓടിക്കാൻ ശ്രമിക്കും അതുവഴി ഞങ്ങൾക്ക് രണ്ട് പേർക്കും മടുപ്പില്ലാണ്ട് തന്നെ ഞങ്ങൾ ലക്ഷ്യ സ്ഥാനത്തെത്തുകയും ചെയ്യാറുണ്ട് നന്നായിട്ട് സ